ന്യൂലാൻ്റ് ബേക്കറി ആണ് ആരാണ് വിളിക്കുന്നത് അ ഉണ്ട് ഉണ്ട് ഏത് കേക്കാണ് വേണ്ടത് ആ ഇവിടെ വാനില ഉണ്ട് സ്ട്രോബെറി ഉണ്ട് പിന്നെ ബ്ലാക്ക്ഫോറസ്റ്റ് ഉണ്ട് വൈറ്റ്ഫോറസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വാനിലയ്ക്ക് ആണെങ്കിൽ അറുന്നൂറ് രൂപ ബ്ലാക്ക്ഫോറസ്റ്റിന് ആണെങ്കിൽ അറുന്നൂറ്റി അമ്പത് രൂപ ആ ഇത് റെഡ് വെൽവെറ്റിനാണെങ്കിൽ ആയിരം രൂപ ആവും അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വാനില കേക്ക് വേണം അല്ലേ വാനില കേക്ക് ആ ഓക്കെ ആ എത്ര

ആ അത് കുഞ്ഞിൻ്റെ പേര് ഒന്ന് പറഞ്ഞേ അഞ്ചു മാത്യു എത്ര വയസ്സാണ് അത് തിരി എത്രയാണ് തരേണ്ടത് പതിനെട്ട് അപ്പം പതിനെട്ട് എന്നുള്ള തിരി അങ്ങോട്ട് തന്നു വിട്ടാൽ മതിയല്ലോ അല്ലേ ആ ആ അപ്പം എന്ന് എപ്പോഴാണ് പാർട്ടി ബർത്ത്ഡേ പാർട്ടി എപ്പോഴാണ് എത്ര മണി വൈകിട്ടാണോ വയ്യിട്ടാ ആ ആ വയ്യിട്ട് നിങ്ങൾക്ക് ഒരു ഉച്ചയോട് കൂടി ഞങ്ങൾ അങ്ങെത്തിക്കാം ആ ആ അല്ല ഞങ്ങൾ അവിടെ ആ ഞങ്ങൾക്ക് ഹോമ് ഡെലിവെറി ഉണ്ട് ഹോം ഡെലിവറിക്ക് ഞങ്ങൾ ആളുണ്ട് ആൾ വന്നു അവിടെ കൊണ്ടു വരും കേട്ടാ ആൾ കൊണ്ടു വരും ആ അന്നേരം അപ്പോഴത്തേക്ക് അതിനുള്ള പൈസ അത് തിരിച്ച് ഞാൻ ഒന്നില്ലെങ്കിൽ ഗൂഗിൾ പ്പേ ചെയ്യുക അല്ലെങ്കിൽ പൈസ ആൾഡേയ്ക്കൊട്ത്ത് വിടുക എന്താണെങ്കിലും ഞങ്ങളോട് അത് അറിയിക്കണം ആ ഗൂഗിൾ പ്പേ ചെയ്യാം ആ ആ പിന്നെ ലഡ്ഡൂ ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും അയ്റ്റം വേണോ

പിന്നേ നല്ല കേക്കാണ് ഞങ്ങടിവ്ട്ന്നെന്തെല്ലാരും മേടിച്ചു കൊണ്ട് പോവുന്നതാണ് ഒത്തിരി ആൾക്കാർ മേടിച്ചു കൊണ്ട് പോവുന്നതാണ് കണ്ടില്ലേ ന്യൂലാൻഡ് ബേക്കറി ഇവിടത്തെ ഹരിപ്പാട് ഏറ്റവും മേയ്ൻ ബേക്കറിയാണ് ഏറ്റവും മെയിനായിട്ടുള്ള ബേക്കറിയാണ് വാങ്ങിച്ചിട്ടുണ്ട് ആ ഞങ്ങളുടെ ആ ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി സാധനങ്ങൾ ഐറ്റെംസ് എല്ലാം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ലാതെ വെറുതെ അവിടെ നിന്നും ഇവിടെ നിന്നും വാങ്ങിച്ചു കൊടുക്കുകയല്ല ഞങ്ങൾ ബേക്കറിയിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് പഫ്സ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഈ ഉണ്ടാക്കുന്ന സാധനമാണ് ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നത് ആ അതെ അതെ കൊടുത്ത് വിടും പിന്നേ ഞങ്ങൾ ആ കറക്റ്റ് ടൈമിന് നിങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്ക് മുമ്പ് ഞങ്ങൾ അവിടെ തന്നു വിടും ഓക്കെ ആ ശരി ഓക്കെ അപ്പോഴത്തേക്ക് ഞങ്ങൾ സാധനം കൊടുത്തു വിട്ടേക്കാം നിങ്ങൾ ബില്ല് പേ ചെയ്താൽ മതി ഓക്കെ ഓക്കെ ഓക്കെ